ഹലോ ഞാൻ ഒരു ഞാൻ ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുന്നതായിരുന്നു അപ്പം ഞാൻ രണ്ടുദിവസം കഴിഞ്ഞിട്ട് ഞാൻ വയനാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാ ഉള്ളത് ആ ഒരു പതിനഞ്ച് പേരുണ്ടാവും അപ്പോൾ ആ ഓക്കെ ഓക്കെ അത് ഇരുപത്തി ഏഴാം തീയ്യതി ആയിരിക്കും ഈ മാസം ഇരുപത്തേഴാം തീയ്യതി

അപ്പോൾ അന്ന് അവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ ഉണ്ടല്ലേ ആ ഓക്കെ അപ്പോൾ അവിട ഫുഡ് എന്തൊക്കെയാ വരുന്നേ

രണ്ടും ഉണ്ട് രണ്ടും ഉണ്ട് നോൺവെജും ഉണ്ട് വെജ് കഴിക്കുന്നവരും ഉണ്ട് ഉണ്ടാവും അല്ലേ ആ ഫിഷ് ഐറ്റംസൊക്കെ എന്തൊക്കെയാ നല്ല ഐറ്റംസൊക്കെ ഉള്ളത് തെറ്റാലിയോ ആ ഓക്കെ ആ അപ്പോൾ അവിടെ നമ്മൾക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഇണ്ടോ ആ നമ്മൾക്കിപ്പോൾ റൂമിൽ നമ്മൾ ഓർഡർ ചെയ്തുകഴിഞ്ഞാൽ റൂമിലേക്ക് നിങ്ങൾ എത്തിച്ചുതരുമോ അതോ നമ്മൾ താഴെ വന്ന് കഴിക്കണോ

ആ ഓക്കെ ഓക്കെ ഇതെവിടെ ആയിരുന്നു സ്ഥലം എവിടെയായിരുന്നു റോട്ടിൽ അല്ലേ ആ റോഡ് സൈഡിൽ തന്നെയാ ആ ഓക്കെ എന്നാൽ ഇരുപത്തി ഏഴാം തീയതി ഒന്ന് ബുക്ക് ചെയ്തോ വേറെ ആർക്കും റൂം കൊടുക്കേണ്ട ഒരു പതിനഞ്ച് പേർക്ക് ഉള്ള റൂമ് വേണം ആ പതിനഞ്ച് വേണ്ട ഒരു ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ